അതായത് നമ്മുടെ മാതൃഭാഷാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അതായത് ഏറ്റോം വലിയ പ്രാധാന്യം കൊടുക്കേണ്ടൊരു കാര്യമാണ് നമ്മുടെ മാതൃഭാഷ സംസാരിക്കുന്ന സംസാരിക്കുക എന്ന കാര്യത്തിൽ പിന്നെ നമ്മുടെ അതായത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും ഒക്കെ മലയാളഭാഷയുടെ പങ്ക് വളരെ അധികം കൂടുതലാണ് മലയാള ഭാഷാന്ന് പറഞ്ഞാൽ നമ്മുടെ മദർ ടംഗ് ആണ് അതായത് നമ്മുടെ അമ്മേൻ്റെ അതായത് നമ്മുടെ അമ്മക്ക് തുല്യമാണ് മാതൃഭാഷ അതിനി നമ്മൾ എവിടെപ്പോയാലും നമ്മളൊരിക്കലും മാതൃഭാഷ മറക്കില്ല മറക്കരുത് ഇന്നത്തെക്കാലത്തൊക്കെ എല്ലാവരും മാതൃഭാഷയെ പിന്നോട്ട് ആക്കിക്കൊണ്ടിരിക്കുകയാണ് കൂടുതൽ ആൾക്കാരും ഇംഗ്ലീഷ് സംസാരിക്കാനാണ് കൂടുതലും ശ്രമിക്കുന്നത് മലയാള ഭാഷ ഇപ്പോൾ ആർക്കും വലിയ താല്പര്യമില്ലാത്ത പോലെയാണ് പക്ഷേ നമ്മൾ ഒരിക്കലും അങ്ങനെ ആവാൻ പാടില്ല നമ്മളെ അതായത് മലയാളഭാഷയെ നമ്മൾ കൂടുതലും അതായത് നമ്മളുടെ സംസ്കാര സാംസ്കാരിക പൈതൃകമൊക്കെ സംരക്ഷിക്കുന്നതുപോലെതന്നെ പ്രോത്സാഹിപ്പിക്കുന്നതൊക്കെ മലയാളഭാഷ തന്നെയാണ് അപ്പോൾ നമ്മൾ മലയാളഭാഷെനെ ഒരുപാട് മുന്നോട്ട് ആക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം